ഞാൻ കേരള ഹൈകോടതിയുടെ ഒരു വിധിയെപ്പറ്റിയിട്ടാണ് ഇവിടെ പറയാൻ പോകുന്നത് വിധിയെന്താന്ന് വച്ചാൽ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ഏതൊരു പുരുഷനും സ്ത്രീക്കും ലൈംഗീക ബന്ധത്തിലേർപ്പെടാം എന്നുള്ളത് അതൊരു ഈ കാലഘട്ടത്തില് അനുയോജ്യമായൊരു കോടതി വിധിയാണെന്ന് ഞാൻ കരുതുന്നു കാരണം പ്രായപൂർത്തിയായൊരു സ്ത്രീക്കും പുരുഷനും അവരുടെ ഇഷ്ട്ടത്തിനനുസരിച്ച് നടക്കാനുള്ളൊരു ഇത് നമ്മളെ ഇന്ത്യൻ ഭരണഘടന നമുക്ക് അനുവാദം നൽകിയിട്ടുള്ള കാര്യമാണ് അങ്ങനെയിരിക്കുമ്പോൾ ഈ ലൈംഗീക ബന്ധത്തിലേർപ്പെടുന്നത് ഒരു തെറ്റായിട്ടൊരു തെറ്റായി കാണുന്നൊരു സമൂഹമാണ് ഇപ്പോ നമ്മുടെ ഇടയിലും വളർന്നോണ്ടിരിക്കണത് അപ്പം അവർക്കെല്ലാം ഒര് എതിരായിട്ടുള്ളൊരു വിധിയാണ് കേരള ഹൈകോടതി ഈയിടെ വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത് അപ്പെന്തായാലും അതൊരു നല്ല കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു